അതായത് നമ്മൾ കടലിൽനിന്ന് മീൻ പിടിക്കുന്നത് വെച്ചാൽ ആദ്യം വലകൾ റെഡിയാക്കണം മീൻ പിടിക്കാനുള്ള വല കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം ഇതെല്ലാം റെഡിയാക്കി വലയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടാണ് കടലിലേക്ക് പോകുന്നത് അപ്പം അതിന് ആവശ്യമായ ബോട്ടും കാര്യങ്ങളും റെഡിയാക്കണം ബോട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ആ കണക്ക് നോക്കണം എല്ലാം നോക്കണം എന്നിട്ടാണ് കടലിലേക്ക് പോവുക അതിന് മുന്നേ ആകാശവും അതേപോലെ പ്രകൃതി എങ്ങനെയാണെന്നൊക്കെ നോക്കുക പിന്നെ ക്ലൈമറ്റ് നോക്കിയിട്ടൊക്കെയാണ് പോവുക ഈ കടലിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ കടലിലേക്ക് ഇറങ്ങാറില്ല അതേപോലെത്തന്നെ അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റാണെങ്കിൽ മഴ ഈ കടലിൽ പോകുന്നവരുണ്ട് കടലിൽ പോയി ഒരു സൈഡിൽ വല ഇട്ടിട്ട് പിന്നെ കറങ്ങി ആ വലയിൽ തന്നെ ടച്ച് ചെയ്ത് പിടിക്കണം അപ്പം അങ്ങനെ വലയിട്ട് പിടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതെടുക്കുമ്പോൾ അതിൻ്റകത്ത് മീനുണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം കുറേ മീനുണ്ടാവും ആ മീനുകളെല്ലാം എടുത്ത് ബോട്ടിൽ വെച്ച് ആ വലകളിൽനിന്നെല്ലാം മീനിനെ ഒക്കെ അഴിച്ച് മാറ്റി ആണ് കൊണ്ടുവരുന്നത് പിന്നെ അത് നാശാവാണ്ടിരിക്കാൻ ഐസൊക്കെ ഇട്ടിട്ട് ചന്തയിലെത്തിക്കും